ലോകത്തിൽ എവിടെ എങ്കിലും പോകാനുള്ള ഒരവസരം എന്ന് പറഞ്ഞ് ഒരു അവസരം എനിക്ക് വന്നാൽ ഞാൻ തീർച്ചയായിട്ടും ഫ്രാൻസാണ് തെരഞ്ഞെടുക്കുക കാരണം ഫ്രാൻസ് ഞാൻ കേട്ടറിഞ്ഞിട്ടുള്ളടുത്തോളം വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെയൊക്കെ ആൾക്കാർ ജീവിക്കുന്ന ഒരു രാജ്യമാണ് അവിടെ ഞാൻ ഒരു പ്രാവശ്യം പോകാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അവിടുത്തെ പ്രകൃതി ഭംഗി എന്ന് പറയുന്നത് എന്നെ ഒത്തിരി ആകർഷിച്ചൊരു കാര്യം പ്രകൃതി ഓരോ റോഡ് സൈഡ് മുഴുവൻ പൂക്കൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന ഒരു പ്രദേശമാണ് ഞാൻ പോയപ്പോൾ കുറച്ച് സ്ഥലങ്ങളാണ് എനിക്ക് അക്കാലത്ത് കാണാൻ പറ്റിയത് കോവിഡ് കോവിഡ് കഴിഞ്ഞ് തൊട്ടടുത്ത കാലത്താണ് ഞാനവിടെ പോയത് അപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് എല്ലാ സ്ഥലങ്ങളിലും മനോഹരമായി ചെടികൾ വച്ച് പിടിപ്പിച്ചിരിക്കുന്നതാണ് നമ്മൾക്ക് നമ്മടെ മനസ്സിന് കുളിർമ്മയേകുന്ന തരം പൂന്തോട്ടങ്ങളാണ് നിറച്ചും റോഡുകളാണെങ്കിൽ മുഴുവൻ റോഡു സൈഡുകളിലും ചെടികൾ ചെടി മരങ്ങൾ മരത്തിലും ഇലയൊന്നും ഇല്ലാതെ കായി പൂത്തു നിൽക്കുന്ന മരങ്ങൾ അതു പോലെ പൈൻ മരങ്ങൾ മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങളിലെ ഈ മരങ്ങളൊക്കെ ഇത് വളരെ പ്രകൃതി രമണീയമാണെന്നുള്ളതാണ് അതുപോലെ നമ്മളിപ്പം ഫ്രാൻസിൽ കണ്ട വേറൊരു പ്രത്യേകത അതു കൊണ്ട് വീണ്ടും വീണ്ടും ആ സ്ഥലം ഞാൻ കാണാനാഗ്രഹിക്കുന്നു എന്നത് കൊണ്ട് ഇനി ഒരവസരം കിട്ടിയാൽ അവിടെ പോകുമെന്ന് പറയാൻ കാരണം കാരണം നമ്മൾ കേരളത്തിലേത് പോലെ ഒന്നും വലിയ കെട്ടിടങ്ങളല്ല പകരം കൊളോണിയൽ ടൈപ്പിലുള്ള ചെറിയ ചെറിയ സാധാരണ പോലെയുള്ള ഒരു ഒരു കുടുംബത്തിന് താമസിക്കാവുന്നതു പോലെ ഉള്ള വലിയ വീട് വലിയ വീടുകളാണ് ഈ ഇങ്ങനെ ഓരോരോ ബിൽഡിങ് ഇങ്ങനെ കെട്ടിടങ്ങളൊക്കെ കുറവാണ് ഇങ്ങനെയുള്ള ഒറ്റ ഒറ്റ വീടുകളാണ് നല്ല ഭംഗിയിൽ പണിതിട്ടുള്ള വീടുകളാണ് അതെല്ലാം അത് അത് കാണാൻ ആ വീടുകളിലെ ആൾക്കാർ താമസിക്കുന്നത് കാണുമ്പോൾ ഈ നമ്മടെ ഇവിടെ ഒക്കെ ഒരുപാട് പിന്നെ നമുക്കിപ്പം ഒരു വീടിനോട് ചേർന്ന് ഒത്തിരി ശുചിമുറികളൊക്കെ ഉണ്ടാക്കും നമ്മൾ കേരളത്തിൽ പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ടത് എത്ര വലിയ വീടാണെങ്കിലും ഒന്ന് അല്ലെങ്കിൽ രണ്ട് ശുചി മുറിയിൽ കൂടുതൽ ഇല്ല എന്നുള്ളതാണ് ബാക്കി റൂമുകൾക്ക് റൂമുകളൊന്നും നമ്മളെ പോലെ ഇങ്ങനെ ഒരുപാട് ഇത് എന്താ കുറേ ഇൻറ്റീരിയർ ഒക്കെ അങ്ങനെ ഒക്കെ ചെയ്തിട്ടൊന്നും അല്ല നല്ല ഭംഗിയായിട്ട് പക്ഷേ അവർ അവിടെ അവിടെയുള്ള ചെറിയ അവരുടെ റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ കുറച്ച് സ്ഥലമാണ് അവർ ഉപയോഗിക്കുന്നത് നമ്മളെ പോലെ ഒരുപാട് ഫർണീച്ച് പിന്നെ വീട്ടുപകരണങ്ങളൊക്കെ അങ്ങനെ വാങ്ങി എടുക്കുന്നില്ല എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നതൊക്കെ കാണണം അതുപോലെ കാണാൻ പുറത്ത് നമുക്കവിടെ ചെന്ന് കാണാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളും ഒന്നിനൊന്നിന് മെച്ചം എന്നുള്ളതാണ് പിന്നെ പിന്നെ ഓരോ സ്ഥലത്തും പ്രത്യേകമായിട്ട് ഉള്ള പാർക്കുകൾ കുട്ടികൾക്ക് വേണ്ടി ഉള്ളതും വലിയവർക്ക് വേണ്ടി ഉള്ളതുമായ മാനസിക ഉല്ലാസം നൽകുന്ന പാർക്കുകൾ അതൊക്കെ നമ്മൾക്ക് സത്യം പറഞ്ഞാൽ നമ്മളുടെ ഒരു ജോലിയൊക്കെ ചെയ്ത് വൈകുന്നേരങ്ങളിൽ മടുത്ത് വരുമ്പോഴോ അല്ലങ്കിൽ ആഴ്ച്ചയിൽ അവസാന ദിവസങ്ങളിൽ നമുക്ക് ജോലി വിശ്രമ ദിവസങ്ങളിലൊക്കെ വെറുതെ അവിടെ പോയി ഇരുന്നാൽ പോലും നമ്മൾക്ക് മനസ്സിൽ എത്ര മനസ്സ് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലോ ഒക്കെ ഈ കാഴ്ചകളിലൂടെ ഇല്ലാതായി പോകുന്നുള്ളതാണ് പിന്നെ വേറൊരു പ്രത്യേകത ഞാൻ ആ രാജ്യത്തൊക്കെ കണ്ടത് നമ്മടെ ഇവിടുത്തേത് പോലെ ആരുടേയും കാര്യത്തിലിടപെടുന്ന ആൾക്കാരെ കാണാനില്ല എന്ത് ഇവിടുത്തെ പോലെ സദാചാര ഗുണ്ടയിസമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല അവർ ഓരോരുത്തർ അവരവരുടെ കാര്യം നോക്കുന്നു അവരവർ ജീവിക്കുന്നു അങ്ങനെ മറ്റുള്ളവരുടെ കുറ്റവും കുറവും കാര്യങ്ങളും ഒന്നിലും ഇടപെടാതെ അവരവരുടെ കാര്യങ്ങൾ നോക്കി അവരവർ ജോലി ചെയ്തു അവരവരുടെ ശമ്പളം മേടിച്ചു വൈകുന്നേരങ്ങളിൽ പാർക്കിലും മറ്റ് വിശ്രമ കേന്ദ്രങ്ങളിലുമൊക്കെ വന്ന് ഉല്ലസിച്ച് അവർ ജീവിതം മുന്നോട്ട് കൊണ്ട് പോകുന്നത് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ അതൊക്കെ കണ്ടും കേട്ടും കാണാനുള്ള ഒരവസരം എനിക്ക് ഉണ്ടായത് കൊണ്ടും ഇനിയും ഒരിക്കൽ എപ്പോഴെങ്കിലും പോകാൻ അവസരം കിട്ടിയാൽ വീണ്ടും അവിടെ തന്നെ പോകണമെന്നാഗ്രഹിക്കുന്ന ഓരാളാണ് ഞാൻ അതുപോലെ ഈ രാഷ്ട്രീയക്കാരുടെ കൊടി തോരണങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവിടെ കാണാനില്ല പകരം അവിടെ സ്റ്റാച്ചൂസ് ഉണ്ട് അത് ഒരു ക്രിസ്ത്യൻ രാജ്യമായത് കൊണ്ടാവാം ക്രിസ്ത്യാനികളുടേതായ ചില പുണ്യവാന്മാരുടെ അല്ല പുണ്യവതികളുടെയൊക്കെ പ്രതിമകളാണ് ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാലും അതങ്ങനെ നഗരം മുഴുവനും നാട് മുഴുവനും ഒന്നുമില്ല പിന്നെ ഓരോ പിന്നെ കെട്ടിടങ്ങളൊക്കെ ആണെങ്കിലും നമ്മളിപ്പം കാണാൻ പോകുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഈ ഇലക്ട്രിക്ക് ഈ എന്താ പറയുക ഇലക്ട്രിക്ക് ഈ കൊണ്ടുള്ള വൈദ്യുത അലങ്കാരങ്ങളുള്ള കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ കണ്ണിന് കുളിർമ്മയേകുന്ന ഒത്തിരി കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് സത്യം പറഞ്ഞാൽ ഈ സ്ഥലങ്ങളൊക്കെ അങ്ങനെ പിന്നത്തെ വേറൊരു പ്രത്യേകത അവിടെ ഇപ്പോൾ നമ്മളുടെ പോലെ ആൾക്കാരെ കുട്ടികളെ ഒക്കെ അവരുടെ മാതാപിതാക്കളെ ഫുള്ളായിട്ട് മുഴുവനായിട്ടങ്ങനെ പിന്നെ ആശ്രയിച്ചല്ല ജീവിക്കുന്നത് എന്നുള്ളതാണ് അവർ ഒരു പ്രയമാകുമ്പോൾ ഒരു ചെറിയ പത്തും പതിനഞ്ചും വയസ്സാകുമ്പോൾ തന്നെ അല്ലങ്കിൽ ഒരു ഏറ്റവും അറ്റം പതിനെട്ട് വയസ്സ് അത് കഴിഞ്ഞാൽ അവർ സ്വന്തമയിട്ട് അവർക്കൂള്ള ജോലി കണ്ട് പിടിച്ചു അവർ ആ ജോലി ചെയ്തുകൊണ്ടാണവർ പിന്നെ അവരുടെ വിദ്യാഭ്യാസം നടത്തുന്നത് നമ്മളാണെങ്കിൽ ഇവിടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ മക്കൾക്ക് അവരുടെ വിദ്യാഭ്യാസം അവരുടെ കല്യാണം അങ്ങനെ നമ്മുടെ ഒരു ജീവിതം മുഴുവൻ സത്യത്തിൽ അവർക്ക് വേണ്ടി മക്കളെന്ന് പറഞ്ഞാൽ അങ്ങ് തീർന്ന് പോയേനെ അവിടെ അതല്ല അവിടെ മക്കൾ ഒരു പത്ത് പതിനഞ്ച് വയസ്സാകുമ്പോൾ തന്നെ അവർ ഓരോരോ ജോലി കണ്ടു പിടിച്ച് അവരുടെ വിദ്യാഭ്യാസത്തിനുള്ള പൈസ കണ്ട് പിടിച്ച് അവർ സ്വതന്ത്രമായിട്ട് ജീവിക്കുകയാണ് അങ്ങനെ മാതാപിതാക്കൾക്ക് അവർ ഒരു ശല്യമാകാനോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ഇവരുടെ പേരിൽ വലിയ ഉൽകണ്ഠകളൊന്നും അവിടെ ഇല്ല എന്നുള്ളതാണ് അങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കാൻ കിട്ടുന്ന അവസരം എല്ലാവർക്കും ഒന്നു പോലെ ഉപയോഗപ്പെടുത്താൻ അവിടെ ഒക്കെ കഴിയും ഇവിടെ ആണെങ്കിൽ ഓരോ തലമുറക്കും അവരുടെ മക്കളെ നന്നാക്കുക അവരുടെ മക്കളെ നന്നാക്കുക ഇത് തന്നെ തൊഴിലായത് കൊണ്ട് ഈ ഒരു കാലത്തും ആർക്കും ജീവിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയൊക്കെ സമ്പാദിച്ച് സമ്പാദിച്ച് നമ്മൽ വച്ച് ലാസ്റ്റ് ആകുമ്പഴത്തേക്ക് ഏതെങ്കിലും ഒരു തലമുറ നല്ല വണ്ണം സമ്പത്തൊക്കെ കണ്ട് കഴിഞ്ഞാൽ അതൊക്കെ മുഴുവൻ ധൂർത്തടിച്ച് തീർത്ത് പിന്നെ അവർ വീണ്ടും പാപ്പരായി തീരുക വീണ്ടും അവരുടെ പേരൻറ്റ്സ് വീണ്ടും ഉണ്ടാക്കി കൊണ്ട് വരുക ഇങ്ങനെ ഒരു എന്താണ് പറയുക ഇങ്ങനെ ഇതിങ്ങനെ നടന്നുകൊണ്ട് പോകുന്നതാണ് ഈ കേരളത്തി ലൊക്കെ ഇങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ കണ്ടു കൊണ്ടിരിക്കുന്ന ഇത്തരം ഒരു സിസ്റ്റത്തിൽ നിന്നൊക്കെ മാറി ചിന്തിക്കുന്ന അത്തരം യൂറോപ്യൻ രാജ്യങ്ങൾ പ്രത്യേകിച്ചും ഫ്രാൻസ് പോലെ ഉള്ള മനോഹരമായ കാഴ്ച്ചയിൽ ഇത്രയും അതിമനോഹരമായ ഈ സ്ഥലങ്ങളിലേക്ക് എപ്പോഴങ്കിലുമൊക്കെ പോകാൻ അവസരം കിട്ടിയാൽ വീണ്ടും വീണ്ടും അവിടെ പോയി കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ പിന്നെ അവിടെ കണ്ട ഒരു പ്രത്യേകത എല്ലാ ആഴ്ചയിലും ഈ പിന്നെ ആഴ്ചയിലും എല്ലാ ആഴ്ചയിലേയും അവസാനം പിന്നെ ഓരോ ഈ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് പോലെ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ചെറിയ ഏറ്റവും താഴെ തട്ടിലുള്ള ഘടകമായിരിക്കും കോർപ്പറേഷനെന്തോ അവരുടെ ആൾക്കാരക്കെ വന്നിട്ട് ഈ അവരുടെ ആൾക്കാരായിരിക്കും അവർ വന്ന് ഈ പുറത്തിപ്പം നമ്മുടെ ഗേറ്റിൻ്റെ വെളിയിലേക്ക് ഒരു ചെടിയുടെ തണ്ട് വീണിട്ടുണ്ടെങ്കിൽ പോലും ആ തണ്ട് പോലും അവർ ഇങ്ങനെ കട്ട് ചെയ്യും അങ്ങനെ അതിങ്ങനെ കറക്റ്റായിട്ട് അവരാണ് അവരാണ് നിർത്തുന്നത് അല്ലാതെ വീട്ടുകാരേക്കാൾ കൂടുതൽ അത് അതോറിറ്റിസ് ഗവർമെൻ്റ് അല്ലങ്കിൽ സർക്കാരും അത് ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളതാണ് അങ്ങനെ അവരുടെ നാട്ടിൽ വൈവിദ്ധ്യങ്ങൾക്ക് അല്ലങ്കിൽ ഇത്രയും ഭ്ംഗിയായിട്ട് ഈ നാടും നഗരവും സൂക്ഷിക്കുന്നതിൽ വീടിനേക്കാൾ ഉപരി അവരുടെ സർക്കാർ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നത് കൊണ്ടാണ് ഇത്ര ഭംഗിയായിട്ട് പോകുന്നത് അതുപോലെ റോഡിൻ്റെ ഇരുവശവും വച്ച് പിടിപ്പിച്ചാൽ വീണ്ടും വീണ്ടും പറയാനാഗ്രഹിക്കുന്നു ഇരുവശങ്ങളിലും വച്ച് പിടിപ്പിച്ചിരിക്കുന്ന ചെടികൾ അതെന്ന് പറഞ്ഞാൽ എനിക്ക് വർണ്ണിക്കാൻ പറ്റുന്നില്ല അത്രയും മനോഹരമായ കാഴ്ചയാണ് ഞാൻ കണ്ട ഫ്രാൻസിൻ്റെ സ്ഥിതി ഇതായത് കൊണ്ട് വീണ്ടും അവിടെ ഒന്നും കൂടെ അവസരം കിട്ടിയാൽ തീർച്ചയായും ഞാൻ അങ്ങോട്ട് തന്നെ പോകും മറ്റ് രാജ്യങ്ങൾ ഇങ്ങനെയായിരിക്കാം എനിക്കറിയില്ല ഏതായാലും ഫ്രാൻസ് ഞാൻ അത്ര മാത്രം ഇഷ്ടപ്പെടുന്നു കിട്ടുന്ന അവസരം അവിടെ പോകാനും അത് ഉപയോഗപ്പെടുത്താനും ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഇത്രയും പറഞ്ഞ് കൊണ്ട് നിർത്തുന്നു